കാലാവസ്ഥ വ്യതിയാനങ്ങൾ കീടങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ നമ്മുടെ വിളകളെ സാരമായിട്ട് ബാധിക്കാറുണ്ട് ഇതുമായിട്ട് ഒത്തു പോകുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ നമ്മൾ ആദ്യ കാലങ്ങൾ തൊട്ട് പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ കൃഷി എന്ന് പറയുന്നത് ഒരു ചൂതുകളിയാണ് കാലാവസ്ഥയുമായിട്ട് ഒത്താൽ ഒത്തു കിട്ടിയ കിട്ടി അല്ലെങ്കിൽ പോയി അത്ര തന്നെ അല്ലാതൊന്നും ഇല്ല ഇപ്പോൾ നോക്കൂ ഇ കൃഷി നമ്മളെ വിളവിടുപ്പിനെ സമയാകുമ്പോൾ കാണുന്ന മൊത്തം കൃഷി അങ്ങോട്ട് മുന്നേ കയറി നെൽ കൃഷിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് മുന്നേ കയറി അങ്ങോട്ട് നശിച്ചു പോകുന്നു സഹിച്ചേ പറ്റു എന്തെടുക്കാൻ പറ്റും ആ സമയത്ത് ആദ്യം പിന്നെ പ്രിക്കോഷണായിട്ട് നമുക്ക് ഒരു മുൻകരുതലായിട്ട് വേണമെങ്കിൽ ഇത് കൃഷി ആദ്യമേ തന്നെ കീടനാശിനി അടിക്കാം പക്ഷേ പൊതുവേയുള്ള കിടനാശിനെ എല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് ഇതേ ചോറ് ഇതിൻ്റെ അരിയാണല്ലോ പിന്നെ ചോറാക്കി നമ്മൾ കഴിക്കുന്നത് എന്നോർക്കുമ്പം അതും ഒരു മനസ്സിൽ വിഷമമാണ് പിന്നെ ഒന്ന് ചേർന്നു പോവുകയാണ് വരുന്ന പോലെ വരട്ടെന്ന് വിചാരിച്ചു അങ്ങ് ചേർന്നു പോവുകയാണ് ഇതാണ് കൃഷിയായിട്ടുള്ള സത്യം പറഞ്ഞാലുള്ള എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ പ്രശ്നങ്ങളും ഇപ്പം ഞാൻ ഇപ്പം ഇന്നലെ തെങ്ങ് ഞങ്ങളുടെ പുരയിടത്തിൻ തെങ്ങ് തേങ്ങ കിട്ടുകയുള്ളൂ തേങ്ങ ഇടാൻ ഇട്ട് നോക്കിയിട്ട് പകുതി തേങ്ങയും കുരുടടച്ചു പോയിരിക്കുന്നു അതായത് ചെല്ലിയുടെ ശല്യം ഭയങ്കരം ഇനി അത് ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ തെങ്ങ് അടുത്ത ആറു മാസത്തിനുള്ളിൽ മണ്ടയെല്ലാം തീ നശിച്ചു അത് നശിച്ചു പോയി അത് ഇത്തേക്ക് ഇല്ലെന്നായി പോകും അന്നേരം ഒരാളെയൊക്കെ കയറ്റി അതിന് മുകളിൽ ഇതിനുള്ള ചെല്ലിയെ തുരത്താനുള്ള മരുന്നൊഴിച്ചു ഒക്കെ ഇട്ടു ഒത്താൽ ഒത്തു അതൊക്കെ ഒരു ഇത് സാധ്യത മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ശരിയാകും അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ഒരു ഒരിക്കലും നമ്മുടെ കൈയിൽ അല്ല ഇതിപ്പം ചില ചില സമയങ്ങളിലാണ് നമ്മുടെ ഭാഗ്യം നല്ലപോലെ നിൽക്കുന്ന സമയത്താണെങ്കിൽ നല്ല നൂറ് മേനി വിളവ് കിട്ടി എന്നിരിക്കും ഒരു പ്രശ്നം ഇല്ല അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് വിളകളെ ഈ ബാധിക്കുന്നത് ഇതിനായിട്ട് ആൾക്കാർ പല ഉപദേശങ്ങൾ തരും നിങ്ങൾ ആ കിടനാശിനി ഉപയോഗിക്കും ആ വളം ഉപയോഗിക്കും നിങ്ങൾ ഇത് ഇത് കാലാവസ്ഥയ്ക്ക് ഈ സമയത്തിനെ ഇപ്പം കൃഷി ചെയ്യരുത് എന്നൊക്കെ പറയും അതുപോലെ നമ്മൾ കേൾക്കും കാരണം നമ്മൾ ആവശ്യക്കാരനായി പോയതുകൊണ്ട് നമ്മൾ അത് കേൾക്കുന്നു ചില സമയത്താണെങ്കിൽ എല്ലാം വിളവൊക്കെ കൊയ്യാറാകുന്ന സമയത്താണ് വളരെയധികം കുറേ കുറ വളരെയധികം കാലാവസ്ഥ മാറുന്നത് പെട്ടെന്ന് വ്യതിയാനം ഉണ്ടായിട്ട് ഇപ്പം ആയിരത്തിത്തൊള്ളായിരത്തി രണ്ട് സോറി രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് തുടങ്ങിയ ആ വെള്ളപ്പൊക്കവും കാര്യങ്ങളുമൊക്കെ എന്തുമാത്രം പ്രശ്നമായിരുന്നു ഒരുവിധം കൃഷി മൊത്തം നശിച്ചു ഞങ്ങളുടെ കൂട്ടനാടന് ഏരിയയിലെ കൃഷികൾ മൊത്തം നശിച്ചു ഇത് എന്ത് നമ്മുടെ കൈയിൽ അല്ല നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഓരോ എന്താണ് പറയുന്നത് വികൃതികളെന്ന് വേണം പറയാൻ അല്ലെങ്കിൽ ഇത് തന്നെ അല്ലെങ്കിൽ നമുക്ക് ഓരോ അനുഭവങ്ങൾ അത്രയേയുള്ളൂ പിന്നെ അതിനോടക്കെ യോജിച്ചു പോവുക രമ്യതപ്പെട്ടു പോവുക കിട്ടിയാൽ കിട്ടിയെന്ന് വിചാരിക്കുക അത്ര തന്നെ പൊതുവേ ഇവിടത്തെ കൃഷിക്കാരെല്ലാം കാലാവസ്ഥ നോക്കി തന്നെ ചെയ്യുന്ന എല്ലാവർക്കും പഴയ ആൾക്കാറുള്ളപ്പഴത്തേക്കും അവരിൽ നിന്ന് ഉപദേശം തേടും ഇന്ന സമയത്ത് കൃഷി ഇറക്കിയാൽ മോശമാണ് ഇന്ന സമയത്ത് കൃഷി ഇറക്കിയാൽ നല്ലതാണ് എന്നൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും പക്ഷേ ഇക്കാലത്തെ കൃഷീ എന്നു പറഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് ആവശ്യത്തിനുള്ള ആൾക്കാരെ ജോലിക്ക് കിട്ടത്തില്ല അപ്പോൾ ഒരു പ്രാവശ്യം അവർ വരുമ്പോഴത്തേക്ക് ആ സമയം നല്ലതാണോ ദോഷമാണോ എന്നറിയത്തില്ല അവരെ കൊണ്ടു അങ്ങ് കൃഷിക്ക് നമ്മൾ പൈസ ഇറക്കും ഇറക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ നോക്കാൻ ശ്രമിക്കും എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് പരിപാലിച്ചു കൊണ്ടു വരാൻ നോക്കും പക്ഷെ നമ്മുടെ കൈയിൽ അല്ല ഇതിൻ്റെ യാതൊരുന്ന് കൺട്രോളും നമുക്ക് ഇല്ല ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഇല്ലായിരുന്നു പൊതുവേ നമ്മൾ ചെയ്യുന്നത് എന്താണ് എവിടെ നിന്നെങ്കിലും ഇല്ലാത്ത പൈസ മുടക്കി കുറച്ചു കൃഷിസാധനങ്ങൾ കിടനാശിനളൊക്കെ വാങ്ങിക്കൂട്ടി അടിക്കും അങ്ങനെ അടിച്ചടിച്ചു ഇപ്പം വേണ്ട ഈയിടെ ന്യൂസ് കേട്ടു മഹാരാഷ്ട്രയിലെ ആൾക്കാരുടെ തലമുടി പൊഴിയുന്നു കഷണ്ടി ആവുന്നു എന്ന് അത് അതിൻ്റെ അവർ പറയുന്ന കാരണം പറയുന്നത് കീടനാശിന ഒത്തിരി ഉപയോഗിച്ച വസ്തുക്കള് ആഹാരമായിട്ടു ഉപയോഗിച്ചു കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് തന്നെ അവർ പറയുന്നത് അ എനിക്കറിയാമേല ശരിയായിരിക്കാം തെറ്റായിരിക്കും ഏതായാലും ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് ഇപ്പം കിടനാനികളുടെ അളവ് കൂടി അതും ഇനി അതെല്ല നമ്മൾക്ക് ഈ ഈ കൃഷിയോട്ടുള്ള ഇത് നഷ്ടമാണെന്ന് വിചാരിച്ചത് നമ്മൾ വേണ്ട എന്ന് വയ്ക്കാൻ പറ്റത്തില്ല കാരണം ആ പുരയിടം അല്ലെങ്കിൽ ആ കൃഷി നിലം അല്ലെങ്കിൽ കൃഷിയിടം നശിച്ചു പോകത്തേ ഉള്ളൂ അത് കാരണം അത് നശിച്ച് പോകാതിരിക്കാൻ വേണ്ടി ആ കൃഷി നമ്മൾക്ക് എന്തെങ്കിലും തുടരുന്നു